എൻ്റെ നാട്ടിൽ എന്താണ് പറയുക ആഘോഷിക്കുന്ന ഒരു മതപരമായിട്ടുള്ള ഒരു ആഘോഷം എന്ന് പറയുന്നത് ഓണമാണ് ഓണം എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്ക് ഇപ്പോൾ ഹിന്ദുക്കൾ മാത്രമല്ല മുസ്ലിംസ് ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ ഇപ്പം ഓണം ആഘോഷിക്കുന്നവർ ഉണ്ട് പക്ഷേ ഞങ്ങൾ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഓണമാണ് വലിയൊരു ആഘോഷമായിട്ടുള്ളത് അപ്പം ചിങ്ങം തൊട്ടിട്ട് എന്താണ് പറയുക ആ ഒരു പത്ത് ദിവസം നമ്മൾ ഓരോ രീതിയിലാണ് പൂക്കളം ഇടുന്നത് ഒരു ദിവസം ഒരു ഒര് ഒര് ആദ്യത്തെ ആ ഒരു ഓണം എന്ന് പറയുന്നത് രണ്ട് കുറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ രണ്ടു പൂവ് വെച്ചിട്ട് അതിന് ചുറ്റും ഒരു വട്ടം ഇടുക അങ്ങനെ പത്താമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും ഒരു കുറ്റി പത്ത് എന്ന് പറയുമ്പോൾ ഒൻപത് പത്തിനുള്ളിൽ ഒരു കുറ്റിയായിട്ട് അതായത് ഒരു പൂവ് വെച്ച് നടുക്ക് വെച്ചിട്ട് നമ്മൾ പത്ത് വട്ടം തികച്ച് ഇടുന്നുണ്ട് ഇപ്പം പത്ത് വട്ടം ആയിട്ടല്ല ഉള്ളത് എന്താണ് പറയുക ഓരോ എന്താണ് പറയുക ഓരോ രീതിയിലാണ് ആൾക്കാർ ഇപ്പോൾ പൂവ് ഇടുന്നത് പിന്നെ എന്താണ് പൂക്കളം പൂക്കളം തീർക്കുമ്പോൾ തന്നെ ഇപ്പം അത് എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ ആണ് മെയിനായിട്ട് ഇപ്പം പറയുന്നത് എന്നുവെച്ചാൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്കാണ് ഓണാഘോഷം എന്ന് പറയുന്നത് പക്ഷേ ഇപ്പം എന്താണ് പറയുക വിദ്യാലയങ്ങളിലും അല്ല ഇടയ്ക് എന്താണ് ഇപ്പം ഓണം എന്ന് പറയുന്നത് നല്ല രീതിയിൽ ആഘോഷിക്കുന്നുണ്ട് അവർ പൂക്കളം ഇടുന്നും പൂ പറിക്കുന്നതും പോയിട്ട് പൂ വാങ്ങിക്കുന്നത് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെയെന്ന് പറഞ്ഞാൽ പൂവെന്ന് പറയുന്നത് വളരെ ചുരുക്കം ആയിട്ടാണ് ഉള്ളത് നമ്മൾ അതുകൊണ്ടുതന്നെ പുറത്തുള്ള അന്യ സംസ്ഥാനങ്ങളിനെ ആശ്രയിച്ചിട്ട് അവർ കൊണ്ടുവരുന്ന പൂക്ക് പൂക്കൾ കൊണ്ടാണ് നമ്മൾ പൂവിടുന്നത് തന്നെ പൂക്കളം തീർക്കുന്നത് തന്നെ പിന്നെ മാവേലി വരും പത്താമത്തെ ദിവസം മാവേലി വന്നിട്ട് പൂക്കളമൊക്കെ കാണും പിന്നെ നമ്മൾ ഓണസദ്യ ഉണ്ടാക്കും അത് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കും അപ്പം അതൊക്കെ തന്നെയാണ് ഓണം എന്ന രീതിയിൽ അല്ലെങ്കിൽ എൻ്റെ സംസ്ഥാനത്ത് ആഘോഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു എന്താണ് പറയുക ആഘോഷം എന്ന് പറയുന്നത് ഓണം ആണ്